എന്റെ മാതൃഭാഷയാണ് മലയാളം ഞാൻ ചെറുപ്പം തൊട്ടേ മലയാളം സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു അതായത് ഞാൻ ജനിച്ച ടൈമിൽ ജനിച്ച സമയത്ത് തന്നെ ഞാൻ മലയാളം സംസാരിച്ചു തുടങ്ങിയത് ഏകദേശം എനിക്ക് ഒരൂ ആറ് മാസം ആകുമ്പം തന്നെ ഞാന് അ അമ്മാ എന്ന് വിളിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഒരു പാട് ചെറിയ ചെറിയ വാക്കുകളും കാര്യങ്ങളും പറഞ്ഞ് പറഞ്ഞിട്ടാണ് ഞാൻ മലയാളം പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് മലയാളം പഠിച്ചത് കൊണ്ട് ഒരുപാട് ഗുണങ്ങള് ഉണ്ടായിട്ടുണ്ട് അത് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്റെ മാതൃഭാഷയാണ് മലയാളം അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വച്ചാൽ എനിക്ക് ആളുകളായിട്ട് പരസ്പരം ആശയ വിനിമയം നല്ല രീതിയിൽ കൈമാറാൻ വരെ മലയാളത്തെ കൊണ്ട് കഴിഞ്ഞു ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാനും എനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആളുകൾക്ക് പറയാനും മലയാളം പഠിച്ചതിലൂടെ കഴിഞ്ഞു പിന്നേ സ്കൂള് തൊട്ടേ ഈ സ്കൂള് സ്കൂളില് പോയി അങ്കണവാടികളില് നിന്നുമാണ് മലയാളം എനിക്ക് നല്ല രീതിയിൽ ആരംഭിക്കാൻ തുടങ്ങുന്നത് പ്രാക്റ്റിക്കലായി ആരംഭിക്കാന് തുടങ്ങുന്നത് സ്കൂളുകളിൽ നിന്നും അതുപോലെ തന്നെ കോളേജുകളിലേക്കും മലയാളം ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞു ഒരുപാട് വാക്കുകളും ഒരുപാട് ശൈലികളും ഒരുപാട് കാര്യങ്ങളുമെനിക്ക് മലയാളം പഠിച്ചതിലൂടെ സ്വായത്തമാക്കുവാന് കഴിഞ്ഞു മലയാളം പഠിച്ചത് ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു പിന്നെ ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തിലും ഭാഗികമായിട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായ നമ്മുടെ എന്താണ് പറയുക നമ്മുടെ ലക്ഷദ്വീപിലും പോണ്ടിച്ചേരിയുടെ ഭാഗം അവടെയെല്ലാം ചെറിയ രീതിയില് സംസാരിക്കുന്നു മലയാളം പിന്നെ മലയാള ഭാഷയെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന നമ്മുടെ അഞ്ചാമത്തെ ഭാഷയാണ് മലയാളം നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ഒരു ഭരണഭാഷ കൂടിയാണ് മലയാളം മലയാളം ബാക്കിയുള്ള ഭാഷക്കാര്ക്ക് സായത്തമാക്കുവാന് തന്നെ കുറേയേറെ പ്രയാസമാണ് അത്രയ്ക്ക് ഒരു മൂല്യച്യുതി ഉണ്ട് മലയാളത്തിന് മലയാളത്തിന്റെ പ്രഭ ഒരു കാലത്തും നഷ്ടപ്പെട്ടു പോകില്ല എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ഉടലെടുത്ത ഒരു ഭാഷയാണ് മലയാളമെന്ന് പറയുന്നത്